ആ ആരാണ് ആരായിരുന്നു ആ എന്തായിരുന്നു വിളിച്ചത് ഓക്കെ ഏത് ക്ലാസ്സിലായിരുന്നു ആ ഓക്കെ ആ ബി എ ഇംഗ്ലീ എക്കണോമിക്സ് നല്ല കോഴ്സാണ് നല്ല ജോലി സാധ്യതകളൊക്കെ ഉള്ളൊരു കോഴ്സാണ് പിന്നെ നല്ല നല്ല പ്രൊഫസ്സർമാരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് നല്ല ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ആണ് ഞങ്ങൾ ഏ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ട്രൈനിങ്ങൊക്കെ കൊടുക്കാറുണ്ട് അതെ പിന്നെ കാമ്പള് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് സൗകര്യം ഉണ്ട് നല്ല സ്കോറോട് കൂടി നല്ല പെർഫോമൻസാണ് കുട്ടി നടത്തുന്നത് എങ്കിൽ നല്ല നല്ല കമ്പനികളിലേക്ക് അവർ ക്യാമ്പസ് സെലക്ഷനിലൂടെ റിക്രൂട്ട് ചെയ്യും അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ കിട്ടുന്ന ജോലിയാണ്

കൗൺസിലിങ്ങ് കൊടുക്കുന്നത് ഇങ്ങനെ സയ് ഈ സൈക്കോളജി കോഴ്സ് പഠിച്ചിട്ടുള്ള ആളുകൾ ക്വാളിഫൈഡായിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ സൈക്കോളജി ഈ കൗസിലിങ്ങ് കൊടുക്കുന്നത് അതായത് കുട്ടികൾക്ക് നല്ല മിടുക്കരായി പഠിക്കാനും അവർക്കൊരു നല്ല ഒരു മെൻറ്റൽ സപ്പോർട്ടും ആ അ ആ കുട്ടികൾക്കത് നല്ല ഗുണം ഉണ്ടാകും ഇന്നത്തെ കാലഘട്ടം ആയതുകൊണ്ട് കുട്ടികൾ പല രീതിയിൽ വഴിതെറ്റി പോകാതെ ഒക്കെ നോക്കേണ്ട ബാധ്യത ഉണ്ടല്ലോ നമുക്ക് ഈ മയക്കുമരുന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഉള്ള ഉള്ളത്കൊണ്ട്

ആ കുട്ടികൾക്ക് ആ ഉണ്ട് ഉണ്ട് കുട്ടികൾക്ക് നല്ല ക്വാളിഫൈഡായിട്ടുള്ള അദ്ധ്യാപകരും ഒക്കെയാണ് നമുക്ക് നമ്മളുടെ സ്ഥാപനത്തിൽ ഉള്ളത് അവർക്ക് നല്ല ഗൈഡൻസ് നമുക്ക് ആ കൊടുക്കുന്നുണ്ട് പിന്നെ അദ്ധ്യാപകർക്ക് റിഫ്രഷ്മെൻറ്റ് ട്രെയിനിങ്ങുകൾ കുട്ടികൾക്ക് ഇങ്ങനെ ട്രെയിനിങ്ങ് പ്രോഗ്രാംസ് ഇത് എല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് ആ അതെ അതെ അതെ അതെ ഇൻറ്റേൺഷിപ്പ് അങ്ങനെയുള്ള പദ്ധതികളെല്ലാം ഉണ്ട് അതെ അതിനുള്ളൊരു ജോലി ചെയ്യുന്നതിന് പ്രതിഫലവും അവർക്ക് കിട്ടും ഇൻറ്റേൺഷിപ്പായിട്ട് ഈ പഠന കാലയളവിൽ അവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ അതെ അതെ അതെ അത്യാവശ്യം നല്ല സഹായം ഒക്കെ കിട്ടും കുട്ടി നല്ല പഠി അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയൊക്കെ ആണോ മാർക്കൊക്കെ ഉണ്ടായിരുന്നോ കുട്ടിക്ക് അത് മൂന്ന് വർഷത്തെ കോഴ്സാണ് ഡിഗ്രി ആ സ്കോളർഷിപ്പ് നല്ല ടാലൻറ്റുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് സ്കോളർ സ്കോളർഷിപ്പ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട് നല്ലനല്ല സ്ഥാപനങ്ങൾ ആ അപ്പം അത് നല്ല കാര്യമാണ് നമുക്ക് അങ്ങനെയൊക്കെ കിട്ടാൻ നല്ല സാധ്യതയുണ്ട് ആ അപ്പം അതിന് നമ്മളുടെ സ്ഥാപനം തന്നെ ഒരു എൻട്രൻസ് എക്സാം നടത്തുന്നുണ്ട് ആ എൻട്രൻസിൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ അത് കിട്ടും അതെ ആ ഇത് അതെ അഡ്മിഷനു മുൻപായിട്ട് തന്നെയാണ് ഈ എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നത് ഈ സബ്ജെക്ടിൽ കൂടി കുട്ടിക്ക് താൽപര്യം ഉണ്ടോ അതോ അച്ഛൻഅമ്മമാര് ഉന്തി മരം കയറ്റുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു കൌൺസിലിംഗ് കൊടുക്കുന്നത് ആ കുട്ടിക്ക് താൽപര്യം ഉള്ള സബ്ജക്ടിലല്ലേ അവന് ഉയർന്ന് ഉയർന്നുയർന്ന് പോകാൻ പറ്റുകയുള്ളു ആ പിന്നെ അതിന് പറ്റുന്ന രീതിയിൽ നമ്മൾ അവന് വേണ്ടുന്ന നമുക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും വേണ്ട ഗൈഡൻസൊക്കെ കൊടുക്കാം അതെ അതെ അതെ അതെ അതെ കുട്ടികളുടെ താല്പര്യത്തിന് ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് അപ്പം അല്ലാതെ കുട്ടികളൊക്കെയാണ് കൂടുതൽ അച്ഛനമ്മമാരുടെ മറ്റുള്ളവരുടെയും നിർബന്ധത്തിന് വിട്ട് കൊടുത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെയാണ് കൂടുതലും ഈ നാർകോട്ടിക്സ് ഇങ്ങനെ ഉള്ള ഐറ്റത്തിലൊക്കെ ചെന്ന് ചാടുന്നത് ആ അതെ നൽ അതെ അതെ അതെ നല്ല അക്കാഡമിക്ക് നിലവാരവുള്ള കോളേജാണ് ഇൻസ്റ്റിട്യൂഷനാണ് നമ്മുടെ അപ്പോൾ ധാരാളം വി ഐ പി കളുടെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടിവിടെ

ആ അപ്പം അങ്ങനെയാണെങ്കിൽ ചെ സാർ നേരിട്ടൊന്ന് വന്ന് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇവിടെ നേരിട്ട് കാണുമ്പം ഇവിടുത്തെ ആ ഓ അടിസ്ഥാന സൗകര്യങ്ങളും നിലവാരവും ഒക്കെ ബോധ്യം വരുമല്ലൊ